കായിക വികസനത്തിനായി ഇഷ്ടംപോലെ കമ്പനികള് നമ്മളെ മുന്നോട്ടു കൊണ്ടുവരാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ എം ആർ എഫ് അപ്പോളോ ടയേഴ്സ് ബൈജൂസ് പിന്നെ നിരവധി ടാറ്റാ അങ്ങനെ നിരവധിയായ കമ്പനികള് നമ്മുടെ കായിക വികസനത്തിനായിട്ട് പണം മുടക്കിയും നമുക്കു വേണ്ടി അവസരങ്ങളൊരുക്കിയും നമ്മളെ ക്ഷണിക്കാറുണ്ട് അതിലൊന്ന് ഉദാഹരണം പറഞ്ഞാലിപ്പോള് ക്രിക്കറ്റൊക്കെയാണേലും ഫുട്ബോളൊക്കെയാണേലും മിക്കതും ആ ഓരോ ടീം ഓരോ കമ്പനികള് സ്പ്രോൺസേഴ്സാണ് കാരണം ഇങ്ങനെ ചെയ്യുന്നതു വഴി രണ്ടു ഗുണം കാര്യങ്ങളാണുള്ളത് ഒന്ന് കമ്പനിയുടെ വളർച്ചയ്ക്കും അവരുടെയൊരു പരസ്യം പോലെയും പിന്നെ രണ്ടാമത് കായികമായി ഇങ്ങനെ ചെയ്യുന്നതു വഴി ഒരു ജന ഒരാൾ കളിക്കുന്ന ജനത്തെ മാത്രമല്ല കളിക്കുന്ന ആൾക്കാരെ കൂടി അല്ല പകരം ആ കളിക്കുന്ന ടീമിൻ്റെ സാ സാഹചര്യത്തെ അവരുടെ ചുറ്റുപാടിനേയും കൂടെയാണു ഞങ്ങള് അവര് വളർത്തുന്നത് കാരണം ഇങ്ങനൊരു കളി വഴി അവർ ലോകപ്രശസ്ത ലോകം ആ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന കളികളിൽ കഴി അറിയപ്പെടുന്ന ഗെയിമുകളിൽ പങ്കെടുക്കുകയും അങ്ങനെ സമൂഹം അറിയുക അതുവഴി ആ കളിക്കുന്ന ആൾക്കാര് അല്ലെങ്കില് കളിക്കുന്ന ആ ടീമിൻ്റെ ഏത് ര സ്ഥലമാണോ അല്ലെങ്കില് ഏതു ചുറ്റുപാടാണോ അതു മറ്റുള്ളവര് അറിയുകയും കൂടാതെ ഏത് അവിടെ സ്പ്രോൺസേഴ്സായ കമ്പനികള് അതും അവർക്ക് മറ്റുള്ളവരിങ്ങനെ മറ്റുള്ളവരിങ്ങനെ അറിയിക്കുക മറ്റുള്ളവരെ അറിയിക്കുകയാണിത് ഇതുവഴി ചെയ്യുന്നത് അപ്പോൾ എന്റെ ഒരഭിപ്രായത്തില് കായികമായ ഇഷ്ടംപോലെ കമ്പനികള് മുന്നോട്ടു വരുന്നുണ്ട് യുവജനങ്ങളെ അല്ലെങ്കില് അവർ ഓരോ സമൂഹത്തിലുള്ള ആൾക്കാരെ അവരവരുടെ കളികളിൽ സഹായിക്കാനും അവരുടെ യായി അവരുടെ കഴിവുകള് പുറത്തു കൊണ്ടുവരാനും ഇഷ്ടംപോലെ കമ്പനികൾ സഹായിക്കുന്നുണ്ടത് ഇതു വഴി അവരുടെ കമ്പനിയുടെ വളർച്ച മാത്രമല്ല ഉപരിയായിട്ട് കളിക്കുന്ന ടീമിൻ്റെ ഒരു സപ്പോട്ടിനും കൂടെയാണിതുപകരിക്കുന്നത് ഒന്നാമതായി അവരുടെ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന ടീമുകളെയൊക്കെ അവര് പണം നൽകി മുന്നോട്ടു കൊണ്ടുവരികയും അതോടൊപ്പം ഇന്ന് കളികളിൽ മുഴുകാനുള്ള സാഹചര്യം അല്ലെങ്കിലവരുടെ സ്ഥലമില്ലാത്തവർക്കായി സ്ഥലം നൽകുകയും അവർക്ക് ജേഴ്സി ഫുട്ബോളിലാണ് ജേഴസിയും മറ്റു സാധനങ്ങളും സാമഗ്രികളും

അവരുടെ വളർച്ചയിലൂടെ ആ അവർക്ക് ഇതുവഴി അവർക്ക് നല്ലൊരു വളർച്ചയാണ് കിട്ടുന്നത് ടി വിയിലൊക്കെ പരസ്യം കൊടുക്കുന്നതിനെക്കാട്ടിലും ഭയങ്കരം ആ എല്ലാവരും അറിയാനും മറ്റുള്ളവര് ശ്രദ്ധ ആകർഷിക്കാനും ഇത് പോലുള്ള കളികളിൽ അവര് സ്പോൺസേഴ്സാവുന്നതു വഴി അവർക്ക് സഹായി അവർക്ക് സഹായം അവർക്ക് സഹായമാവും അതുകൊണ്ടിഷ്ടംപോലെ കമ്പനികളിങ്ങനെ മുന്നിട്ട് നിൽപ്പുണ്ട് നി ഓരോ പ്രാദേശികമായ കളികൾ വികസിപ്പിക്കാനൊക്കെയായിട്ട് അപ്പോള് ഇങ്ങനെ ചെയ്യുന്നതു വഴി യു ഒരു സമൂഹത്തെയും കൂടെയാണവര് അവര് വളർത്തുന്നത് കാരണം അവരുടെ അവരുടെ കഴിവുകള് മനസ്സിലാക്കി അവർക്കു വേണ്ടി കുറേ സമയവും അവരുടെ സമ്പാദ്യവും കുറേ മുക്കാല് പകുതി നമുക്കുവേണ്ടി ചെലവഴിച്ച് നമ ആ ചെലവഴിക്കുകയാണത് ഇതുവഴി കമ്പനികൾ ചെയ്യുന്നത്